എൻ്റെ പ്രൊഡക്റ്റിനെ പറ്റി പറയുവാണെങ്കിൽ ബ്ലൂടൂത്തിൻ്റെ ഹെഡ്സെറ്റ് ആണ് അത് വാങ്ങിയ സമയത്ത് നല്ലൊരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ നല്ല പ്രൊഡക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ അതിന്റെ ആ ബിൽഡ് ചെയ്തിരിക്കുന്നത് സംഭവങ്ങളൊക്കെ അടിപൊളിയാണ് പിന്നെ അതിന്റെ സൗണ്ട് അത് വയ്ക്കുമ്പോൾ ഉള്ള സൗണ്ട് അടിപൊളി ആയിരുന്നു പിന്നെ വെക്കന്ന് വേഗന്ന് ചാർജ് കയറും ചാ കുറഞ്ഞ സമയം കൊണ്ട് വേഗന്ന് ചാർജ് കയറും നല്ലൊരു അടിപൊളി പ്രൊഡക്റ്റ് ആണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ട്മായി ആ പിന്നെ കൊണ്ട് നടക്കാൻ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാധനമാണ് നമുക്ക് കൊണ്ട് നടക്കാൻ ഭയങ്കര ഈസി ആണ് എവിടെ വേണമെങ്കിലും ഇങ്ങനെ കൊണ്ട് നടക്കാൻ പറ്റും ഭയങ്കര ഈസി ആണ് കാരണം അല്ല അത് മാത്രമല്ല നല്ലൊരു പ്രൊഡക്റ്റ് ആയിരുന്നു എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടം ആയിരുന്നു ആ പ്രൊഡക്റ്റ് മാത്രമല്ല അതിൻ്റെ സൗണ്ട് എന്ന് വെച്ചാൽ ഭയങ്കര അടിപൊളി സൗണ്ട് ആണ് ആ ഹെഡ്സെറ്റിന് നല്ല സൗണ്ട് നല്ല ഹോം തിയേറ്റർ പോലെയൊക്കെ തന്നെ നല്ല ഒരു സൗണ്ട് ആണ് ഹെഡ്സെറ്റിൻ്റെ പിന്നെ എല്ലാം കൊണ്ട് നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി പ്രൊഡക്റ്റ് ആണ് ബാലൻസ് ചെയ്യാൻ നല്ല സിമ്പിൾ ആണ് ആ ഒരു നല്ല അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റ് ആണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇപ്പോൾ എവിടെ പോവണെങ്കിലും ഞാനിപ്പം അതുംകൂടെ തന്നെയാണ് പോകൽ നല്ല അടിപൊളി സാധനം ആണ് ആ ഇതുവരെ നല്ലൊരു പ്രൊഡക്റ്റ് ആയിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്